തീർച്ചയായും മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളായതിൽ എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വച്ചാൽ നമ്മുടെ മാതൃഭാഷ മലയാളം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് അതിൽ തന്നെ മാതൃത്വം എന്നു പറയുന്നതിൽ തന്നെ ഒരു അമ്മയുടെ കരുതലുണ്ട് പിന്നെ എനിക്ക് മലയാളത്തില ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്കുകൾ ഒന്ന് അമ്മയും ഒന്ന് അച്ഛനുമാണ് അമ്മ നമ്മളെ പത്ത് മാസം നൊന്ത് പ്രസവിച്ചെങ്കിൽ അച്ഛൻ നമ്മളെ ലോകം കാണിച്ച ഒരാളാണ് നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ മാറ്റിവച്ചു നമ്മളെ അവർ മുന്നോട്ട് കൈ പിടിച്ചു നടത്തുന്നുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നടത്തിത്തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മലയാളം മണ്ണിൽ ഒട്ടനവധി കലാകാരന്മാർ ജനിച്ചു വളർന്ന മണ്ണാണ് വൈക്കം മുഹമ്മദ് ബഷീറാവട്ടെ വയലാർ രാമവർമ്മ ആവട്ടെ പഴശ്ശിരാജ ആവട്ടെ അതുപോലെ ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഈ മണ്ണിൽ ജനിച്ചു വളർന്നതാണ് പിന്നെ ഒരുപാട് ചിത്രകാരന്മാർ നടന്മാർ മറ്റനവധി കലാ സാഹിത്യ രംഗത്ത് ഒട്ടേറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കേരളം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ആലപ്പുഴയും കൊച്ചി ആലപ്പുഴയുടെ പ്രത്യേകത എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കായലാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഹൗസ് ബോട്ടുകളും കായലുകളും ഷാപ്പുകളും അതുപോലെ തന്നെ വള്ളം കളി ആറൻമുള സദ്യ അതെല്ലാം ആലപ്പുഴയെ ആകർഷിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ ആലപ്പി ബീച്ച് ഇതെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോൾഗാട്ടി പാലസ് ഫോർട്ട് കൊച്ചി ബീച്ച് മറൻ ഡ്രൈവ് ബ്രോഡ്വേ ജൂ സ്ട്രീറ്റ് പുത്തംകുരിശ് പള്ളി അങ്ങനെ ഒട്ടേറെ പള്ളികളുണ്ട് എടപ്പള്ളി പള്ളി നമ്മുടെ പുണ്യാളൻ്റെ പള്ളിയാണ് എടപ്പള്ളി പള്ളി അവിടെയൊക്കെ ഒട്ടേറെ ആൾക്കാർ വരാറുണ്ട് അത്രയും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട് ഗോഡ്സ് ഓൺ കൺട്രീ എന്നാണ് കേരളത്തെ നമ്മൾ വിളിക്കുന്നത് അങ്ങനെയൊരു മണ്ണിൽ മലയാള ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ആയതിൽ എനിക്ക് ഒട്ടേറെ അഭിമാനമുണ്ട് അങ്ങനെയൊരു മണ്ണിൽ ജനിച്ചതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനും ഞാൻ ഒരു മലയാളിയാണെന്ന് പറയാനും എനിക്ക് അത്രയേറെ അഭിമാനത്തോടെയാണ് ഞാൻ ഒരു മലയാളിയാണെന്ന് പറയുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ല നമ്മുടെ ഈ ക്ലൈമറ്റും കാലാവസ്ഥ ക്ലൈമറ്റും മറ്റു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് എനിക്ക് ഒട്ടേറെ ഇഷ്ടമാണ് നമ്മുടെ കേരളം അതുപോലെ തന്നെ മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇച്ചിരിയും കൂടി ഈസിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഭാഷ മലയാളമാണ് മറ്റു ഭാഷകളെ വച്ചിട്ട് നോക്കുമ്പോൾ മലയാളത്തിന് അതിൻ്റെതായ ഒരു ശൈലി ഉണ്ട് അതിൻ്റെ ഒരു സൃഷ്ടി ഉണ്ട് മലയാളത്തിൽ തന്നെ നമുക്ക് ഒട്ടേറെ കവിതകൾ കഥകൾ അതുപോലെ പദ്യങ്ങൾ കുറേ രൂപം കലാരൂപങ്ങൾ ഉണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഓട്ടൻതുള്ളൽ മോഹിനിയാട്ടം കഥകളി നങ്ങ്യാർ കൂത്ത് ചാക്യാർ കൂത്ത് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട്